ഹലോ ആ ഓക്കെ

ഓക്കെ ഓക്കെ നോൺ ആണോ വെജ് ആണോ നോൺവെജാ കുഴിമന്തി ഉണ്ട് അൽഫാമുണ്ട് ഓ ഉണ്ടാവും അൽഫാം മന്തിയും ഉണ്ട് അൽഫാമും ഉണ്ട് ഓക്കെ ഓക്കെ ഉണ്ടാവും ആ അത് നിങ്ങൾ ഓർഡർ തന്നാൽ മതി അതെ അതെ ഉണ്ടാവും ഹോം ഡെലിവറിയും ഉണ്ട് കേട്ടോ ഹോം ഡെലിവറിയും ഉണ്ട് ഓക്കെ ഓക്കെ ഓക്കെ ആ നിങ്ങൾ പറയുന്ന ടൈമാണെങ്കിൽ ഓക്കെ ആയിരുന്നു ഏതാ ദിവസം

വാ നാലര ഒക്കെയാവുമ്പോഴത്തേക്ക് ഓക്കെ

അതേപോലത്തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൻ്റ അതല്ലാണ്ട് റൂംസ് ഉണ്ട് കേട്ടോ

ഓക്കെ ഓക്കെ ആ ആ ഓക്കെ

ഓക്കെ എന്നാൽ ശരി ഓക്കെ ആ ഈ നമ്പറ് ഈ നമ്പറിൽ വിളിച്ചാൽ പോരേ ഓക്കെ ശരി ഓക്കെ ഓക്കെ ശരി ശരി